ഞാനുണ്ടാക്കിയ ഇത് പാവകൾ വൂളനൂലുകൊണ്ടുള്ള പാവകൾ സ്കാർഫ് ഉടുപ്പ് സെറ്ററ് അതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല പിന്നെ ഈ കല്യാണത്തിന് വേണ്ട ബൊക്കകൾ ബൊക്കയുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല പരമായിട്ട് പോവുമായിരുന്നു

അതൊക്കെ ഇഷ്ടമാണ് ഈ വൂളനൂൽ കൊണ്ട് പാവകളെയൊക്കെയുണ്ടാക്കി വണ്ടിയിലൊക്കെ തൂക്കൂലേ അതുപോലത്തെയൊക്കെ അതൊക്കെ പിന്നെ ചിത്രം വരച്ചിട്ട് പെയിൻ്റുകൾ പെയിൻറ് കൊടുക്കുക അതൊക്കെ അതൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന പണി പണിയായിരുന്നു